ഹലോ സാർ ഹ്യുണ്ടായ് ആണ് ഓക്കേ ഓക്കേ സാർ പറഞ്ഞോളൂ എങ്ങനെയാണ് നിങ്ങളുടെ ഫീച്ചെർസ് കാര്യങ്ങൾ എല്ലാം പറയൂ ഓക്കേ പറ പറയൂ ഓക്കേ ഹ്യുണ്ടായ് എതാ പറഞ്ഞത് സാർ ഒന്നുംകൂടി പറയൂ

ഓക്കേ അത് സ്റ്റാർട്ടിങ് ടെൻ ലാക്ക് ആണ് ആ അത് നമ്മളിപ്പോൾ എന്താ പറയുക മാക്സിമം ഒരു ഫിഫ്റ്റിൻ ലാക്കിനുള്ളിൽ ആണ് വരുള്ളൂ വണ്ടി പക്ഷെ അതിനേയും കാട്ടിൽ നല്ലതെന്ന് പറയുമ്പോൾ ഹ്യുണ്ടായ് ക്രെറ്റയാണ് അതാകുമ്പോൾ എയിടീൻ ലാകാണ് സ്റ്റാർട്ടിങ് എയിടീൻ ലാകിന് നല്ല ഒരു പ്രൊട്ടക്ഷൻ വണ്ടി തന്നെ നമുക്ക് കിട്ടും നമുക്ക് സുഖമാണ് കംഫര്ട്ടബിള് ആണ് പോകാന് അപ്പോൾ അത് നല്ല അതിനിപ്പോൾ ഇതിനും നല്ല ഒരു വണ്ടിയാണ് നമ്മുടെ ക്രെറ്റയെന്ന് പറയുന്നത് ആ എയർ ബാഗ്സ് നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ ഹൈ പ്രൊട്ടക്ഷൻ നമുക്ക് പ്രോവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ലക്ഷ്വറി വണ്ടി പോലെ നമുക്ക് തോന്നും പിന്നെ ഇന്റീരിയർ പക്കാ അടിപൊളിയാണ് പിന്നെ നമുക്ക് മൈലേജ് അത്യാവശ്യമുണ്ട് ചെറുതായിട്ട് കുറച്ച് ഉണ്ട് പിന്നെ നമുക്ക് കംഫർട്ടാണ് പോവാൻ സിക്സ് വരുന്നുണ്ട് ആ ഹ്യുണ്ടായ് വേർണെൽ നമുക്ക് നാലണമെ വരുന്നൊള്ളു ആ ഹ്യുണ്ടായ് ക്രെറ്റയില് നമുക്ക് ആറ് എണ്ണം വരുന്നുണ്ട് രണ്ടെണ്ണം എക്സ്ട്രാ കൂടി വരുന്നുണ്ട് മൈലേജ് മൈലേജ് നമുക്ക് ഇതിന് പതിനാറ് ആണ് ആ പറയുന്നത് നിങ്ങൾക്കൊരു പതിന്നാല് മാക്സിമം കിട്ടും മറ്റേത് നമുക്ക് പത്ത് ആണ് പ പത്തേ കിട്ടുകയുള്ളു ഞങ്ങളിപ്പോൾ കമ്പനി കറക്റ്റ് പറഞ്ഞ് തരുന്നത് പതിനാറാണ് പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ വണ്ടിയുടെ കണ്ടിഷൻസ് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് നമുക്കൊരു ഒരു ഒരു ഒരു ബോർ ആയിട്ട് തോന്നും കമ്പനി നിർത്താൻ പോകുന്ന ഒരു വണ്ടിയാണ് അത് അത്കൊണ്ട് തന്നെ അപ്പോൾ നമ്മ അതാകുമ്പോൾ നമുക്ക് ലോ ബജറ്റ്ലുള്ള വണ്ടി തന്നെ വേണ്ടി വരും കാരണം എന്താ പറയുക ഹ്യുണ്ടായ് ഐടെൻ അതൊക്കെ നമ്മുക്ക് ആ റേഞ്ച്ലെ കിട്ടുകയുള്ളു മൈലേജ് നോക്കുന്നെങ്കിൽ അപ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ കുറയും ഒരു സെക്യൂരിറ്റി സെക്യൂർ ആയിട്ട് നമുക്കൊരു ഇത് ഉണ്ടാവില്ല പിന്നെ ആ ഹ്യുണ്ടായ് ക്രെറ്റയില് മൈലേജ് അത്യാവശ്യം കിട്ടും നമുക്ക് മാക്സിമം ഒരു പതിനാറ്ന്നുള്ളത് പതിനഞ്ച് വരെ നമുക്ക് കിട്ടും പിന്നെ പോകാനും സുഖമാണ് നമുക്ക് ഇപ്പോൾ എങ്ങോട്ട് ഇപ്പോൾ ദൂരെ ലോങ്ങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സുഖമാണ് പിന്നെ നമുക്ക് ഇതില് ഓട്ടോമാറ്റിക്ക് ആണ് വരുന്നത് പിന്നെ മാന്വലും ഉണ്ട് മാന്വൽ ഓട്ടോമാറ്റിക് ഉള്ള വേർഷൻ വേറെയുണ്ട് പിന്നെ ഇത് ഓട്ടോമാറ്റിക്ക് മാത്രം ഉള്ളത് ഉണ്ട് പിന്നെ മാന്വൽ ആയിട്ടുള്ളത് ഉണ്ട് നിങ്ങൾക്ക് എത് വേർഷനാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം ഓക്കേ ഓക്കേ ഓക്കേ സാർ താങ്ക്യു